വീട്ടിൽ അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഓർഡർ ചെയ്തത് സംഭവം എനിക്ക് നല്ല ഒരു ഇതാണ് തോന്നിയത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിവിധ തരത്തിലുള്ള സ്റ്റാർ പ്ലസ് മൈനസ് പിന്നെ മറ്റേ മുനയുള്ള ടൈപ്പ് അങ്ങനെ ഫുൾ സെറ്റ് കാര്യങ്ങളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല കമ്പനിൻ്റെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വലിയ വിലയും കാര്യങ്ങളൊന്നും ആയിട്ട് ഓഫർ പ്രൈസിൽ കിട്ടിയതാണ് അപ്പോൾ വല്യ വിലയും കാര്യങ്ങളൊന്നുമില്ല യൂസ് ചെയ്യാനും ചിലതു പോലെ കൈ വേദനിക്കണ നമുക്ക് എത്ര പ്രഷർ കൊടുത്താലും കൈ വേദനിക്കണൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്